ചിത്രം വരയ്ക്കാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പിൻ്ററസ്റ്റുകളിൽ നിന്നാണ് പിൻട്രസ്റ്റുകളിൽനിന്ന് ചിത്രം സ്ക്രീൻഷോട്ട് എടുത്തത് അത് വരയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓൺലൈനായിട്ടും പിൻട്രസ്റ്റിൽനിന്നാണ് ചിത്രങ്ങളെടുക്കുക അതുകൂടാതെ തന്നെ യൂട്യൂബിൽ നിന്നും ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരയ്ക്കാനുള്ള ഓപ്ഷനുകൾ ഇപ്പം യൂട്യൂബിൽ അവൈലബിള് ആണ് അതുകൊണ്ടുതന്നെ യൂട്യൂബ് പിൻട്രസ്റ്റ് തുടങ്ങിയ ഓൺലൈൻ ഇതിൽനിന്ന് തന്നെ നമുക്ക് ചിത്രങ്ങൾക്കൊരു ഇത് വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഓൺലൈനായിട്ടുതന്നെ നമുക്കിപ്പോൾ ഉണ്ട് പിന്നെ ചിത്രങ്ങൾ റെഫറ് ചെയ്യുമ്പോളും എനിക്ക് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ പിൻട്രസ്റ്റീന്നും യൂട്യൂബിൽനിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിയിട്ടുള്ള ചിത്രങ്ങൾ സെലക്റ്റ് ചെയ്ത് അതിരുന്ന് വരയ്ക്കുകയും അതിനെ ഒരു എന്തുമായിട്ടും ആണോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടുതന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഡ്രോയിങ്